ഞങ്ങളുടെ പ്രദേശത്തെ പ്രധാന സിനിമാ തിയേറ്ററുകള് ശിവദം സിനിമാസ് മാപ്രാണം വര്ണ്ണ ചെമ്പകശ്ശേരി സിനിമാസ് മാസ് സിനിമാസ് എന്നിവയൊക്കെയാണ് കൂടാതെ കുറച്ചകലെയായി പെരിങ്ങോട്ടുകര ദേവ ലിറ്റില് ദേവ എന്നീ പിന്നെ പിന്നേ ചാന്ദ്രീ മൂവീസ് അങ്ങനെ ഒരുപാട് സിനിമ തിയേറ്ററുകളുണ്ട് അതിൽ ഞാൻ ഏറ്റവും അധികം പോകാറുള്ളത് ശിവദത്തിലേക്കും ചെമ്പകശ്ശേരിയിലേക്കും വര്ണ്ണയിലേക്കും ആണ് അതില് ശിവദത്തിലേക്ക് ഞാന് പോകാറുള്ളത് കൂടുതലും വീട്ടുകാരോടൊപ്പം ആണ് കസിന്സിന്റെയും എന്റെ അനിയത്തിമാരുടെയും ഒക്കെ ഒപ്പം ഞാൻ പോകാറുണ്ട് അച്ഛനോടും അമ്മയോടും ഒപ്പവും ബന്ധുക്കളോടൊപ്പവും ഒക്കെ പോകാറുള്ളത് ഏറ്റവും അടുത്തുള്ള നല്ല തിയറ്റർ ആയ ശിവദം സിനിമാസിലാണ് പിന്നെ കൂട്ടുകാരോടൊപ്പം ഏറ്റവും അധികം പോകാറുള്ളത് ഇരിങ്ങാലക്കുടയിലുള്ള ചെമ്പകശ്ശേരി സിനിമാസിലാണ് അവിടെ ഒരുപാട് സ്ക്രീനുകൾ ഉണ്ട് മൂന്ന് നല്ല സ്ക്രീനുകൾ ഉണ്ട് അവിടെയാണ് പിന്നെ കൂട്ടുകാരോടൊപ്പം പോകാറുള്ളത് പിന്നെ കുടുംബത്തോടൊപ്പം ആയാലും കൂട്ടുകാരോടൊപ്പം ആയാലും ഒന്നോ രണ്ടോ തവണ പോയിട്ടുള്ളതാണ് ആ വര്ണ്ണ സിനിമാസ് ഞാൻ പൊതുവേ ഒരു സിനിമാ സ്നേഹി ആയത് കൊണ്ട് തന്നെ ഇടയ്ക്കിടെ സിനിമകള് ഇറങ്ങുമ്പോള് കാണാറുണ്ട് ഏറ്റവും അധികം സിനിമകള് കാണാറുള്ളത് ചെമ്പകശ്ശേരിയിലും ശിവദത്തിലും ആയാണ് അങ്ങനെ എന്റെ സിനിമാ യാത്ര വീട്ടുകാരോടും കൂട്ടുകാരോടുമൊക്കെ ഒപ്പം അവിടെ ഒക്കെ ഞാൻ സമയം ചെലവഴിക്കാറുണ്ട് സിനിമകളെപ്പറ്റി ചർച്ചകൾ നടത്താറുണ്ട് വലിയ വലിയ മാറ്റങ്ങൾ സിനിമകൾക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നുമുണ്ട് ഇതൊക്കെയാണ് സിനിമ തിയേറ്ററുകൾ എനിക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ